എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ തറവാട്ട് വീട്ടിലായിരുന്നു അന്ന് കൂട്ടു കുടുംബമായിട്ടാണ് കഴിഞ്ഞിരുന്നത് പിന്ന എല്ലാവരും സെപ്പറേറ്റായി അന്നൊക്കെ ഞങ്ങൾ ഞാൻ ചെറുപ്പത്തിൽ ചെറുതായിരിക്കുന്ന സമയത്ത് മുത്തിയമ്മ എപ്പോഴും ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞ് തരുമായിരുന്നു അതുപോലെ അമ്മ എന്തെങ്കിലും കാര്യത്തിന് തല്ലാനൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഓടിപ്പോയിട്ട് മുത്തിയമ്മയുടെ അടുത്ത് പോയി ഒളിച്ചിരിക്കുമായിരുന്നു അതൊക്കെ നല്ല രസമായിരുന്നു അതുപോലെ ഓണം വിഷു അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുമായിരുന്നു വല്ല്യച്ഛനും വല്യമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും അവരെ മക്കളെല്ലാരും എല്ലാവരും കൂടെയായിരുന്നു ആഘോഷിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാവരും സെപ്പറേറ്റായി വീട് വെച്ചു വല്ലപ്പോഴും മാത്രമാണ് ഒരുമിച്ച് കാണുന്നത് അതുപോലെ അന്നൊക്കെ കളിക്കാനാണെങ്കിലും എല്ലാവരും ഉള്ള സമയത്ത് സുഖമായി കളിക്കും എടുക്കും ചിരിയും തമാശയും കളിയൊക്കെ ആയിരുന്നു അതൊക്കെ എപ്പോഴും നല്ല മനസ്സിൽ നല്ലൊരു ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ട്